ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും കുറെ ഉണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭാഷയെ കുറിച്ചുള്ള വില അറിയുന്നത് നമ്മൾ ഇപ്പോൾ അമേരിക്കയിൽ ഒക്കെ പോകുവാണെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ഇന്ത്യ വിട്ട് കേരളം വിട്ട് പോകുവാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ അറിയേണ്ടത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണ് കൂടുതൽ അറിയേണ്ടത് നമ്മൾ ഇപ്പോൾ എവിടെങ്കിലും ഒക്കെ പോയി പോയാല് നമ്മളോട് ആദ്യം സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി അങ്ങനത്തെ ഭാഷകൾ എല്ലാവർക്കും കൂടുതലായിട്ടും അറിയുന്നുള്ളു മലയാളം അങ്ങനെ എവിടെയും ഫേമസ് അല്ല നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തു മാത്രം മലയാളം സംസാരിക്കുന്നുള്ളു ഇപ്പോ തന്നെ ഓരോ സ്ഥലത്തുള്ള ബംഗാളികൾ ആണെങ്കിലും മാ ഉത്തർ പ്രദേശ് ബിഹാർ എന്നിവിടങ്ങളിൽ ഉള്ളവരൊക്കെ നമ്മള നാട്ടിലേക്ക് പണിക്ക് വരുന്നുണ്ട് എന്നാൽ തന്നെ അവര് നല്ല ഹിന്ദിയും ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് വരുന്നതും ഇവിടെ വന്നിട്ടും പഠിക്കുന്നുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ അവർ നമ്മുടെ ഭാഷയായ മലയാളം കൂടെ പഠിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ആണെങ്കില് വേറെ ഒരു സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് ഒന്നും പറയാൻ തന്നെ കിട്ടണില്ല അതുകൊണ്ട് തന്നെ മലയാള ഭാഷ സംസാരിക്കുന്നവര് നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാൻ അറിയാത്ത കൊണ്ട് തന്നെ കുറെ ആളുകൾ നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് അറിയില്ല മലയാളം മാത്രമേ അറിയോളു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ കളിയാക്കുന്നവരും ഉണ്ട്